ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു സൂര്യോദയവും സൂര്യാസ്ഥമയവും ബീച്ചിലെ തന്നെയാണ് കേട്ടോ ഒരു അഞ്ചര അഞ്ചേമുക്കാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചര അഞ്ചര അവണം കേട്ടോ ഒരു ആഞ്ച് അഞ്ചര കഴിഞ്ഞ് കഴിയുമ്പം കാണാൻ എന്ത് ഭംഗിയാണ് അസ്തമയം ചുവന്ന സൂര്യനെ നേർക്കായിട്ട് കാണുമ്പോൾ എന്ത് ഫീലാണെന്ന് അറിയോ അത് അതെനിക്ക് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ കാരണം ഞാൻ നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്തുള്ളത് കോഴിക്കോട് ബീച്ചൊക്കെ ആണല്ലോ അല്ലാതെ വല്ല ഹിൽ സ്റ്റേഷനോ അങ്ങനെയൊന്നും നമ്മൾ പോയി നിൽക്കുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫീലാണ് വലിയ മലമുകളിലൊന്നും അല്ലാത്തോണ്ട് അവിടെത്തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ചുവന്ന സൂര്യൻ കടലിലോട്ട് ഇങ്ങനെ താഴ്ന്ന് പോവുന്നതും ഉദയം കാണണം രാവിലെപ്പോയാൽ കാണാം ഉദയം ഒരു നേരത്തെ പോകണം നമ്മൾ രാവിലെയെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ പോകണം എന്നാലേ നമുക്ക് ഉദയം കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു മലയടുക്കുന്നിങ്ങനെ പൊന്തി വരുന്നതുപോലെ തോന്നും മേഘങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത് കാണുമ്പോഴുള്ള ഫീലാണ് ഏഹ് ഒരാളോട് എക്സ്പ്ലനേഷൻ ചെയ്തു കൊടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിച്ച് കൊടുക്കാം വൗ എന്ന് പറയാം പക്ഷെ നമുക്കത് ഒരാൾക്ക് വിവരിച്ച് കൊടുക്കുന്നതിനേക്കാളും രസം അത് കാണുന്നതിനാണ്